എൻ്റെ രണ്ടാമത്തെ പ്രോഡക്റ്റ്ന്നു പറഞ്ഞാൽ ഫാനാണ് ഫാനിനെ കുറിച്ച് പറയുകയാണെങ്കില് ഇപ്പോൾ നമുക്ക് ഈ കൂളറ് ഉപയോഗിക്കുന്ന പോലെത്തന്നെയാണ് ഫാനും ഉപയോഗിക്കുന്നത് കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ഫാന് നമുക്ക് ചൂടുള്ള ഒരു കാലാവസ്ഥയില് ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ മൂന്ന് തരം ഫാനുകളാണിപ്പോൾ കൂടുതലായിട്ടും വിപണിയിലുള്ളത് അതില് നമ്മള് കൂടുതലായിട്ടും ഇപ്പോൾ നമ്മുടെ ഈ വാർക്ക വീട്ടിലൊക്കെയാണ് കൂടുതലായിട്ടും സീലിംഗ് ഫാന് കാര്യങ്ങളൊക്കെ യൂസെയ്യുന്നത് ഇപ്പോൾ ഇവിടെ വാർക്ക വീട്ടില് എല്ലാ സമയങ്ങളിലും നമുക്ക് സീലിംഗ് ഫാന് യൂസെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മള് വാൾ ഫാന് കാര്യങ്ങളൊക്കെ യൂസെയ്യും അപ്പോൾ വാൾ ഫാനുകൊണ്ടും നല്ല രീതിയിലുള്ള തണുപ്പ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് അപ്പം നമുക്കപ്പം സീലിംഗ് ഫാന് നേരിട്ട് കാറ്റടിക്കാണ്ട് നമ്മള് റൂമു മൊത്തത്തിൽ തണുപ്പിക്കുന്നൊരു ടൈപ്പാണ് സീലിംഗ് ഫാനെന്ന് വേണമെങ്കിൽ പറയാം അത് മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കില് ചെറിയ രീതിയില് തണുപ്പിക്കുന്ന അതായത് ഒരു ഒരു സ്ഥലം കേന്ദ്രികരിച്ച് മാത്രമാണ് ഈ വാൾ ഫാനും ടേബിൾ ഫാനിനൊക്കെ കാറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുക അപ്പോൾ അത് അതിൻ്റെ നെഗറ്റീവെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെയിനായിട്ട് നമുക്ക് മുഖത്തേക്ക് നേരിട്ടടിക്കുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങള് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അലർജി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വല്ലാണ്ട് വരിക അതായത് കഫക്കെട്ട് പോകാണ്ടിരിക്കുക പനി വരിക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും വരും ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള നെഗറ്റീവ് പിന്നെ കറൻ്റ് പോയി കഴിഞ്ഞാൽ നമുക്കത് ഇപ്പോൾ എന്താ പറയുക പ്രവർത്തിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നതല്ല